ആ പറയൂ ഏട്ടാ പറയൂ ഏട്ടാ ആ ഞാൻ നേരത്തെ പറഞ്ഞു ചേട്ടന് എങ്ങനത്തെ വീടാണ് വേണ്ടത് ആ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ചേട്ടൻ കറക്റ്റായിട്ട് അതായത് ടൗൺ ഏരിയയോ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ഉള്ളിലോ ഒരു ആ ടൗൺ ഏരിയയായാലും കുഴപ്പുല്ല എന്നാൽ ഉള്ളിലേക്ക് ആവാൻ അധികവും പാടില്ല എങ്ങനെ ഈ അതായത് വീടായിട്ട് വേണോ അതോ ഫ്ലാറ്റായിട്ട് ആ ടൈപ്പ് വേണോ

ടൗൺ ഏരിയലേക്ക് നമുക്കൊരു മാസം ആറായിരം വരുന്നുണ്ട് വാങ്ങാൻ റെന്റ് തന്നെ വരുന്നുണ്ട് ആറായിരം പിന്നേ ഉള്ളിൽ ഏ വാങ്ങാനാണെങ്കിൽ നമുക്കൊരു പത്തുലക്ഷത്തിൽ ഉറപ്പിക്കേണ്ടിവരും കാരണം ടൗൺ ഏരിയയല്ലെ ഇല്ല കുറയുമോ എന്നു പറഞ്ഞാൽ കുറയ്ക്കാൻ നോക്കാം ഒരു എട്ട് ലക്ഷം ഏഴു ലക്ഷം ഒക്കെ ആക്കി നോക്കാം ടൗൺ ഏരിയ പാലക്കാട് ടൗൺ ഏരിയയായിട്ട് വരും അതിൽ കുറച്ചപ്പുറത്തേക്ക് പോയാൽപ്പിന്നെ അതിൻ്റെ ആ ഗ്രാമ പ്രദേശവും അങ്ങനെയായിട്ട് വരും ആ പിന്നെ നിങ്ങൾക്കെങ്ങനെ രണ്ടുനില റൂം രണ്ടുനില വീടോ അതോ ഒറ്റ നിലയായിട്ടുള്ള വീടോ എത്ര ബെഡ് റൂം വേണം അങ്ങനെയൊക്കെ ആ അതായത് ഒരു നിലയിൽ രണ്ടെണ്ണം മേലേത്തതിൽ രണ്ടെണ്ണം അങ്ങനെയായിട്ട് മതിയോ ആ ആ ഓ ചേട്ടൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് റെന്റിനാണെങ്കിൽ എന്നാൽ ആ അയ്യായിരത്തിനുള്ളിൽ നമുക്കൊന്നൊപ്പിക്കാം അയ്യായിരത്തിനുള്ളിൽ നമുക്കൊന്നൊപ്പിക്കാം പക്ഷെ ഗ്രാമം മറ്റേ ടൗണിൻ്റെ കുറച്ചു പുറത്തായിട്ട് വരും ടൗണിലുമല്ല ഗ്രാമത്തിലുമല്ല ആ ഇടയിൽ വരുന്ന സ്ഥലമാണ് ആ ഭാഗത്തായിട്ട് കിട്ടണം ഓ മൂന്നു കിലോമീറ്ററിനുള്ളിലാണ് ആ അതുപോരെ

വൃത്തിയുള്ള വീടാണ് എനിക്കറിയുന്ന കുടുംബക്കാരാണ് ഒരു അവർ ഈ ക്രിസ്ത്യൻസിൻ്റെ കുടുംബമാണ് നല്ല വീടാണ് അവർ ദിവസേന ഒരാളിനെ പണിക്ക് നിർത്തിയിട്ട് ഒരു ചേച്ചീനെ പണിക്ക് നിർത്തിയിട്ടുണ്ട് ദിവസേന വന്ന് അടിച്ചും വൃത്തിയാക്കിയും എല്ലാം കഴിഞ്ഞ് അവർ പോകും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലത്തൊരു സെർവന്റിനേയും കൂടി ഒപ്പിക്കാം അതും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടവർ ഓ അതിനിപ്പെന്താണ് ഞാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അടുത്താഴ്ച എവിടെയുണ്ടെന്നു പറഞ്ഞാൽ മതി ഞാൻ ടൗണിൽ തന്നെയുണ്ടാവും ഓക്കേ ആ ആയിക്കോട്ടെ